ചെടികൾ ചെടികൾക്ക് കൂടുതൽ വളം ചെ ഇട്ടുകൊടുത്തെങ്കിലേ കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയുള്ളു നമ്മൾ കൂടുലായിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് റോസാ ചെടികൾക്കൊക്കെ നല്ല ഉള്ളിത്തൊലി ഒക്കെ വെച്ചിരുന്നത് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടന്നെ ചെടികൾക്ക് നല്ലതായിട്ട് പൂക്കൾ വിരിയുക ഒക്കെ ചെയ്യും പിന്നത് പോലെ മലക്കറീടെ വേസ്റ്റ് മലക്കറി വേസ്റ്റൊക്കെ വരുന്നത് വെച്ചിരിന്നു അത് വെച്ചിരുന്ന അതിനാ ചുവട്ടിലിട്ട് കൊടുക്കുമ്പോൾ അത് ചെടികൾക്ക് കൂടതലായിട്ടുള്ള ഉത്പാദനവും അതിന് വേരുകൾ പോയി അതിൻ്റെ ചെടികൾക്ക് നല്ല നല്ല നല്ലതായിട്ട് വിത്ത് പൊട്ടി കിളുക്കുകയൊക്കെ ചെയ്യും അതേപോലെ തന്നെ ചാണക പൊടി ചാണക പൊടിയാണെങ്കിലും ഈ റോസാ ചെടിക്കും മറ്റുള്ള ഈ ചെടികൾക്കും ഒക്കെ ഇട്ടു കൊടുക്കുകയൊക്കെ ചെയ്യും കൂടുതലായിട്ട് പൂക്കൾ ഞങ്ങളുടെ വീട്ടിലുണ്ടാവുകയൊക്കെ ചെയ്യും പൂക്കളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിത്തൊലി നമ്മൾ വെച്ചിരിന്നിട്ടത് അത് വെച്ചിരുന്ന് കുറച്ച് ദിവസം വെച്ചിരുന്നിട്ടത് ഇട്ടുകൊടുക്കാങ്കിൽ അതാണ് കൂടുതൽ നല്ലത് പിന്നെ പിന്ന നമ്മുടെ മലക്കറി നമ്മളരിയുന്ന വേസ്റ്റ് വെച്ചിരുന്ന് മറ്റേ രണ്ട് മൂന്ന് ദിവസം വെച്ചിരുന്നിട്ട് അത് എല്ലാ ചെടികൾടേം ചോട്ടിലിട്ട് കൊടുക്കുന്നു നല്ലതായിട്ടതിന് ഉത്പാദനം ഉണ്ടാവുകയും അതിൻ്റെ വേരുകൾ കൂടുതലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോയാലും വിത്തുകൾ കൂടുതൽ കൂടലായിട്ട് പൊട്ടി കിളിക്കയൊക്കെ ചെയ്യും വ വളങ്ങൾ ചാണകം ചാണകപ്പൊടി കൂടതലായിട്ടതിന് ചാണകം ഇട്ട് കൊടുക്കുന്നൊടന്നെ നല്ലതായിട്ട് ഒണക്കി പൊടിച്ച ചാണകമാണ് പച്ച ചാണകമായിട്ട് കൊടുത്താൽ അത് കൂടുതൽ ഈ കൃമികളൊണ്ടാവും പച്ച ചാണകം നല്ലതല്ല അതിനും നല്ലത് ഈ ഒണക്ക ചാണകവാണ് നമ്മൾ ചെടിക്ക് കൂടുതലായിട്ട് അതിട്ട് കൊടുക്കുന്നത് ചെടികൾക്കതിട്ട് കൊടുക്കുന്നൊടന്നെ ചെടികൾക്ക് പൂക്കൾ നിറച്ച് തഴച്ച് വളരുകയും ചെയ്യും പിന്നെ കഞ്ഞി വെള്ളം വെച്ചിരുന്നത് രണ്ട് മൂന്ന് ദിവസം വെച്ചിരുന്നത് പുളിച്ച് വരുമ്പോൾ അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ അത് വേരുകൾ നല്ലതായിട്ടാഴ്ന്ന് അതിന് വിത്തുകൾ പൊട്ടുകയും പൊട്ടി പൊട്ടി കിളുർക്കുകയും കൂടുതലായിട്ട് കൂടുതൽ വിത്തുകൾ പൊട്ടിക്കിളുക്കയും ചായ് പുളി പുളിച്ച കഞ്ഞിവെള്ളം നല്ല കീടനാശിനികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടുകയും ചെയ്യും പിന്നെ നല്ല കുരുടി വരുന്നതിനെയൊക്കെ നമ്മൾ കുറച്ച് ചാ ചാരം ഉണ്ട് അത് വിതറി കൊടുക്കുമ്പം കുരുടുന്നതിൻ്റെയൊക്കെയുള്ളൊരു കുരുടിയാ പുഴുക്കൾ വരും അതൊക്കെയങ്ങു പോയിക്കിട്ടും പിന്നെ കൂടുതലും നമ്മൾ ചാണകം തന്നെയാണ് ചാണകോം മണ്ണുംകൂടെ ചേർന്ന് അത് ഇളക്കി ചേർത്തു അത് ചെടി നടുമ്പോൾ നല്ലതായിട്ട് വേരുകൾ നല്ലതായിട്ട് കിളിച്ച് നല്ല ആയിട്ട് പിന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേസ്റ്റും മലക്കറീടെ വേസ്റ്റും അങ്ങനൊക്കെ വരുന്നത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കയും ചെയ്യും പിന്നെ തേയിലേടെ തേയില നമ്മൾ നമ്മളുപയോഗിച്ച് തെയിലേടെയിത് കൊന്തുണ്ട് അത് വെച്ചിരുന്ന് കൂടുതൽ കുറച്ച് കുറച്ച് ഒരാഴ്ച്ചയൊക്കെ വെച്ചിരുന്നിട്ടത് അതൊന്നൊണക്കി ചേർത്ത് കൊടുക്കുന്നെയാണ് കൂടുതലും നല്ലത് പിന്നേന്നൊണ്ടെങ്കിൽ അതിനൂടിച്ചിരി വെള്ളം ഇത് ചാണകപ്പൊടിയൂടി ചേർത്തെല്ലാം ചെടിടേം ചുവട്ടിൽ കുറേച്ചേ കുറേച്ചേ ഇട്ട് കൊടുക്കാണെങ്കിൽ വേരുകൾ കൂടുതലത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വിത്തുകൾ കൂടുതൽ നമുക്ക് പൊട്ടി കിളിച്ച് മാറ്റി മാറ്റി നടാൻ പറ്റും അതേപോലെ നമ്മളീ ഏത്തയ്ക്കാടെയൊക്കെ തൊലി വരുന്ന ഇത് അത് വെച്ചിരുന്ന് അത് രണ്ട് മൂന്ന് ഭാ ആയിട്ട് കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ടത് രണ്ട് മൂന്ന് ദിവസം വെച്ചിരുന്നിട്ടാണ് വെള്ളം നമ്മളെല്ലാ ചെടികൾടേം ചോട്ടിൽ ഒഴിക്കുമ്പോൾ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയികിട്ടും ചെടികൾക്ക് നല്ലതായിട്ടുള്ള വേരുകളും അതിന് അതിന് പറ്റിയത് പൂക്കളായിട്ടുള്ളതൊക്കെ നിറച്ച് പൂക്കൾ വരുവാനും നമുക്കത് ഉപയോഗിക്കാനും പറ്റും അതേപോലെ തന്നെ നമ്മളിത് അതേ കണക്ക് തന്നെ ഉള്ളിത്തൊലി ഉള്ളിത്തൊലി സവോളേടെ തൊലി അങ്ങനെയൊക്കെയത് വെച്ചിരുന്ന് നമ്മൾ പിന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കുറച്ചിവസം വെച്ചിരുന്നാൽ ഉള്ളിത്തൊലിയും ആ ഉള്ളിത്തൊലി തന്നെ വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളോം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഒഴിച്ച് കൊടുത്താൽ ആ വെള്ളം നല്ലതാണ് ആ ഉള്ളി സവോള അല്ലാതന്നെ നമ്മൾ കീറി വെള്ളത്തിലിട്ട് കൊടുക്കുമ്പോൾ ചെടിക്ക് കൊണ്ടൊഴിക്കുമ്പോൾ അത് കീടങ്ങളൊക്കെ അങ്ങ് പോകും പിന്നെ ചെടികൾക്ക് വേരുകൾ നല്ലതായിട്ട് പോകാൻ നമ്മൾ വേരുകൾ അങ്ങോട്ടിങ്ങോട്ടും പോയി അതിനുള്ള വിത്തുകൾ പൊട്ടി കിളുർക്കയും നമുക്ക് മാറ്റി നടാനും പറ്റും കൂടലോർക്കിടിനൊക്കെ നമ്മളീ ചീനിച്ചായും ഓർക്കിഡ് ചെടികൾക്ക് നമ്മൾ തൊണ്ട് തൊണ്ടും പിന്നെ ചുടുകട്ട പൊടിച്ചത് കരിക്കട്ടയെല്ലാവൂടെ ചേർത്തിട്ട് കൊടുക്കാമെങ്കിൽ നല്ല ആ വളവാ അതിന് നല്ല പൂക്കൾ വരും പിന്നെല്ലാ ചെടികൾക്കും നമ്മൾ ഈ തൊണ്ടിൻ്റെ ചകരീടെ പൊടി കൊടുക്കയൊക്കെ ചെയ്യും പിന്നെ ചാണക പൊടി ചെടികൾക്ക് നല്ല ചാണകപ്പൊടി നമ്മൾ പൊടിച്ച് ചാണാകോം പിന്നെയീ ഇച്ചിരി വെള്ളം കൂടെ ചേർത്തും വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മളീ ഉണക്ക് സമയത്തൊക്കെ വെള്ളം ഒഴിക്കാതിരുന്നാൽ പൂക്കളൊന്നും പിടിക്കത്തില്ല അതേപോലെ തന്നെ വെള്ളോം കൊടുക്കണം പിന്നെ കഞ്ഞിവെള്ളം നമ്മളത് വെച്ചിരുന്നിട്ട് നല്ല പുളി വരും പുളിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം വെച്ചിരിക്കണം വെച്ചിരുന്നാൽ അതേപോലെ ഒരു കുപ്പിക്കാത്തെടുത്തിട്ട് ആ കുപ്പീൽ ഒഴിച്ച് ആ അളവിൽ തന്നെ വെള്ളം കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് ആ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കണം ഒഴിച്ച് കൊടുക്കുമ്പം നല്ലതായിട്ടുള്ള പിന്നെ വേരുകൾ പൊട്ടിക്കിളുക്കാനത് കൂടുതൽ വിത്ത് പൊട്ടുകയൊക്കെ ചെയ്യും മലക്കറിയാണ് കൂടുതൽ മലക്കറി വേസ്റ്റ് നമ്മൾ തക്കാളീടെ വേസ്റ്റ് വെണ്ടയ്ക്കാടെയൊക്കെ വേസ്റ്റുകളൊക്കെ ഇയാ വേസ്റ്റായിട്ട് വരുന്നതൊക്കെ വെച്ചിരുന്നതെല്ലാം കൂടെ അതിനെചേർത്തു അത് ഞവടി കൂട്ടി അതിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ലെയാ ചാണകോം കൂട് ചാണകത്തന്നെ ചാണക പൊടിയാണ് കൂടുതലും മെയിനായിട്ട് നല്ലത് നമ്മൾ വേറെ വളങ്ങളൊന്നും നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കണ്ടി വരത്തില്ല നമ്മൾ വീട്ടിൽ തന്നെയുണ്ടല്ലോ വളങ്ങൾ അതെല്ലാം കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കാങ്കിൽ ചെടികൾക്ക് കൂട്തൽ പിന്നെ പിന്നെ വേരുകൾ പൊട്ടി കിളിക്കേം അതേപോലെ തന്നെ വളങ്ങളും പിന്നെ അതിന് വളങ്ങളൊക്കെ ചെരുന്നൊടനേ വിത്തുകൾ പൊട്ടും കൂടുതലായിട്ട് വിത്തുകൾ പൊട്ടി നമുക്ക് ഒത്തിരി ഒത്തിരി ചെടികളിൽ ചെടി ചെടിച്ചട്ടീലോട്ടൊക്കെ മാറ്റി ചെടികൾ നട്ടു പിടിപ്പിക്കാൻ പറ്റും ഇനി നല്ല എന്നാൽ ഈ വെളുത്തുള്ളീടെ വെളുത്തുള്ളീടെ തൊലി വരുന്നതും അത് വെച്ചിരുന്നത് പൊടിച്ച് ചേർക്കുന്നവരുണ്ട് അല്ലെങ്കിത്തന്നെയത് വെള്ളത്തിലിട്ടത് പിഴിഞ്ഞ് ആ വെള്ളം ഒഴിച്ച് കൊടുത്താലും ഈ കീടങ്ങളൊക്കെ നമുക്കത് അതിനെ മാറ്റി നിർത്താൻ പറ്റും പൂക്കൾ പിടിക്കേം ചെയ്യും പൂക്കളുണ്ടാവാനും കൂടുതൽ നമ്മൾ ഉള്ളിത്തൊലിയാണ് ഉള്ളിതൊലിയാണ് നല്ലത് മെയിനായിട്ട് വരുന്നത് പിന്നെ പഴത്തിൻ്റെ തൊലിയൊക്കെ വെച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന് അതും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നു നല്ലതാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഇതേണക്ക് പുളിച്ച് പുളിച്ച് നല്ല പുളി വരുന്ന കഞ്ഞിവെള്ളത്തിൽ ഈ ചോറ് വേസ്റ്റൊക്കെ വരുന്ന നല്ലോണം ഞെവടി ചേർത്ത് നല്ലതായിട്ട് ഞെവടി ചേർത്ത് വെള്ളോം കൂടെ ചേർത്ത് മണ്ണിൻ മണ്ണ് മാ ചെടീടുത്ത് ശകലം മണ്ണ് വാരി ശകലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാങ്കിൽ നല്ല നല്ലതാണ് ചെടിക്കൊക്കെ നല്ലതാണ് നല്ല വളമാണ് അത് പിന്നെ കൂടെ കൂടെയിരിക്കുമ്പോൾ ഇച്ചിരി നെയ് കീടങ്ങളൊക്കെ വരുമ്പം ഈ ചെടികൾ മേളിലൊക്ക തളിച്ച് കൊടുക്കണം ഈ കഞ്ഞിവെള്ളം തളിച്ച് കൊടുക്കാങ്കിൽ കീടങ്ങളൊക്കെയങ്ങ് പോകും പിന്നെ പൂക്കളൊക്കെ വരികയും എന്നാലും നിറച്ച് പൊട്ടിക്കിളിക്കയും നല്ല കാ എന്ന ശിഖരങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യും പൂക്കളുണ്ടാകുകയും പിന്നെ ഓർക്കിഡും ഓർക്കിഡ്ന്നൊള്ള നല്ല പൂക്കൾ വരണോന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചി ചാണകപ്പൊടിയും കൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ ഉള്ളിതൊലിയാണ് നല്ലത് മെയിനായിട്ട് മറ്റൊള്ള ചെടികൾക്കെല്ലാം ഇട്ട് കൊടുക്കുക റോസാ ചെടിക്കൊക്കെ ഉള്ളിത്തൊലിയാണ് മെയിനായിട്ട് വേണ്ടുന്നത് ഉള്ളിത്തൊലി നല്ല അത് നല്ല തണുപ്പും കിട്ടും പിന്നതേ പോലെ വെള്ളോം നല്ലായിട്ടൊഴിച്ച് കൊടുക്കണം അത് വെള്ളം കൊടുക്കണം പിന്നെ വെളുത്തുള്ളീടെ തൊലി അതേ പോലെ നല്ലതാണ് അതും ഇട്ട് കൊടുക്കുക പിന്നെ കൃമികളും കീടങ്ങളൊക്കെ വന്ന് പെടത്തില്ല പിന്നെ വേരുകൾ നല്ലതായിട്ട് പിടിച്ച് അതും നല്ല അടുത്തൊള്ള വെച്ച് ഒത്തിരി വിത്തുകളൊക്കെ പൊട്ടി നമുക്ക് കൂടുതൽ ചെടിച്ചട്ടീലൊക്കെ മാറ്റി നടാനും നല്ല നല്ല പൂക്കളൊക്കെ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടാകാനും നിറച്ച് പൂക്കൾ നമുക്ക് തെരീകയൊക്കെ ചെയ്യും കൂടുതലും വളാ ഞാൻ പിന്നെ നമുക്ക് വീട്ടിത്തന്നെ നമുക്കൊണ്ട് ഒത്തിരി വളങ്ങളൊക്കെ ചേർത്ത് നമുക്ക് തന്നെ ചെയ്യാന്നതേയുള്ളു എല്ലാം പുറത്ത് പോയി വാങ്ങിക്കേണ്ടി വരത്തില്ല നമുക്ക് നമ്മുടെ വീട്ടിത്തന്നെയൊണ്ട് പിന്നീപ്പാത്രം കഴുകുന്ന വേസ്റ്റ് വെള്ളോ അങ്ങനൊക്കെ കഴുകുന്ന വെള്ളങ്ങളൊക്കെയൊണ്ടല്ലോ ആ വെള്ളങ്ങളൊക്കെ നമ്മൾ ചേർത്ത് ചെടികൾക്ക് കൊണ്ടൊഴിയ്ക്കാങ്കിൽ നല്ലെയാ പാത്രത്തിൻ്റെ ഈ കരീടെയൊക്കെ ഉള്ള കരി പോലുള്ള വെള്ളങ്ങളും ചെടിക്കൊക്കെ കൊണ്ടൊഴിക്കാങ്കിൽ നല്ല വളമാണ് അതൊക്കെ പിന്നെ കഞ്ഞിവെള്ളം കൂടുതൽ കഞ്ഞിവെള്ളം നല്ലാ കഞ്ഞിവെള്ളം വെച്ചിരുന്നു കുറെ വെള്ളോം കൂടി ചേർത്തൊഴിക്കാങ്കിൽ അതാണ് കൂടുതൽ നല്ലത് ചെടിക്കൊക്കെ നല്ല പൂക്കൾ വരികയും കൂടുതലായിട്ട് വിത്തുകൾ പൊട്ടി കിളുക്കയും അതേപോലെ എല്ലാം നല്ലെയാണ് പിന്നെ ഇ പഴവർഗം പഴത്തിൻ്റെയൊക്കെ വേസ്റ്റ് വരുന്നത് അത് വെച്ചിരുന്നിട്ട് പഴത്തൊലിയൊക്കെ വെച്ചിരുന്ന് അതെല്ലാം കൂടെ ചേർത്ത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെള്ളം ചേർത്ത് അതെല്ലാം കൂടെ ചേർത്ത് അതിനാത്തൊഴിച്ച് കൊടുത്താലും നല്ലെയാണ് ഈ പച്ചക്കറി വരുന്ന കൂടുതലായിട്ട് പച്ചക്കറി വേയ്സ്റ്റ് നമുക്ക് കിട്ടുവാണെങ്കിൽ അതു മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുവല്ലോ അത് വെച്ചിരുന്നു നമ്മൾ തന്നെയത് വെച്ചിരുന്നത് പിന്നെ നമ്മുടെ അയൽക്കാരൊക്കെ വന്ന് ചോദിക്കുമ്പോക്കെ അഞ്ചാറ് വിത്തെങ്കിലും നമുക്ക് അതീന്ന് കൊടുക്കാൻ പറ്റും അപുറത്തുള്ളവരൊക്കെ വന്ന് നമ്മുടെ ഞങ്ങടേന്ന് വാങ്ങിച്ചോണ്ട് പോവാറുണ്ട് കൂടുതൽ കൂടുതൽ ചെടി ചട്ടീലോട്ട് മാറ്റി മാറ്റി വെക്കുമ്പോൾ നിറച്ച് ചെടിച്ചട്ടി ചെടി ചെടീയാകും കൂടുതൽ പൂക്കളും നമുക്ക് കിട്ടും നമുക്ക് ഉപയോഗിക്കാനും പറ്റും നമ്മുടെ വീട്ടിലേക്കല്ലെങ്കിൽ പുറത്താർക്കേലും വേണമെങ്കിൽ കൊടുക്കയൊക്കെ ചെയ്യാൻ പറ്റും പിന്നങ്ങനെ ചെടികൾ ചെടികൾ നമുക്ക് വേണങ്കിലങ്ങനെ വെച്ചിരുന്ന് അൾക്കാർക്ക് കൊടുക്കേം അല്ലെങ്കിൽ പിന്നെ എന്തേലും വരുന്നവർക്ക് ചോദിക്കുമ്പോൾ ദാണ്ടെ ചോദിച്ചൽ നമുക്കെടുത്ത് കൊടുക്കാൻ ഒരു വിത്തെങ്കിലും ഇളക്കി തരാമോന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കണോണോന്നൊണ്ടെങ്കിൽ നമ്മളീ വളങ്ങൾ ചേർത്തെങ്കിലേ മാത്രമേ നമുക്ക് ചെടികൾ നല്ലയായിട്ടത് കൊടുക്കാനും പറ്റത്തൊള്ളു അതീ ചാണകപൊടി നല്ല മെയിനാണ് നല്ല വൃത്തിക്ക് വരണ ചാണകം നല്ലതായിട്ട് അതൊണക്കണം പച്ച ചാണകം ഇട്ട് കൊടുക്കരുത് ഉണക്ക ചാണകം വേണം കൊടുക്കണ്ടത് പച്ച ചാണകം ഇടുമ്പോൾ അതിന് പിന്നെ പുഴുക്കൾ കയറി പിടിക്കും അതെ സമയം ഉണങ്ങി നല്ലതായിട്ട് ഇട്ട് കൊടുക്കാന്നൊണ്ടെങ്കിൽ ചെടിക്ക് നല്ല പുഷ്ടിയോടെ വളരാനും അതിന് വേരുകൾ നല്ലതായിട്ട് പൊട്ടി കിളിച്ച് ഒത്തിരി വിത്തുകൾ നമുക്ക് കിട്ടും പിന്നെ തേയിലയുടെ തേയിലേടെ തന്നെയാണ് കൊന്ത് തന്നെ വെച്ചിരുന്നിട്ട് തന്നെ ചാണകപ്പൊടിയും ആ തേയില കൊന്തവും കൂടി ചേർത്ത് കുഴച്ച് അതെല്ലാ ചെടികൾടെ ചോട്ടിലിട്ട് കൊടുത്താൽ കുറേശ്ശേ കുറേശ്ശേ അതിട്ട് കൊടുക്കുമ്പോൾ എല്ലാ ചെടികൾക്കും ആകും അന്നേരം എല്ലാ ചെടികൾക്കും നല്ല നല്ല വലിയ പൂക്കൾ വരികയും വിത്തുകൾ പൊട്ടുകയൊക്കെ ചെയ്യും എല്ലാം എല്ലാടോം എല്ലാവരും എല്ലാവരുമങ്ങനെ ചെയ്യാറുണ്ട് ഞാനങ്ങനെ ചെയ്യുന്നത് പിന്നെല്ലാർക്കും വേണേൽ ഞാനത് പറഞ്ഞ് കൊടുക്കും ഇങ്ങനേക്കെ ഇട്ടു കൊടുക്കാണെങ്കിൽ ചെടികൾക്ക് വിത്ത് പൊട്ടുകേം പൂക്കളൊക്കെ ശരിക്ക് കിട്ടും എന്നോട് വന്ന് ചോദിക്കാറുണ്ട് ഇതെങ്ങനെ ചെടികളെക്കെയെങ്ങനെ ഇങ്ങനെ കിളിക്കുന്നത് എന്ത് വളം ഇട്ട് കൊടുക്കുന്നത് ചോദിക്കും ഞാനവർക്ക് പറഞ്ഞ് കൊടുക്കാറും ഉണ്ട് ചാണകപ്പൊടി നമുക്കിവടെ നമുക്ക് അപുറത്തൂന്നൊക്കെ ഉണ്ടായത് കൊണ്ട് കുറേച്ചേ എടുത്തോണ്ട് വന്നു ഉണക്കി എടുത്തു ഞാനത് ചാക്കിനകത്താക്കി വെച്ചിരുന്നു കുറേച്ചേ കുറേച്ചേ ചെടികൾക്ക് ഇട്ട് കൊടുത്തു വേറെ വളങ്ങളൊന്നും ഞാൻ പുറത്തൂന്നൊന്നും കടകളിൽ നിന്നൊന്നും ഞാൻ വാങ്ങിക്കാറില്ല നമ്മൾ ചെയ്യുന്ന വളം തന്നെ ചെടിക്കിട്ട് കൊടുക്കുന്നത് കൊണ്ട് നല്ല നല്ല പൂക്കൾ നമുക്ക് പറിക്കാൻ പറ്റും പറിച്ചെടുത്ത് ആൾക്കാർക്ക് കൊടുക്കും ഒക്കെ ചെയ്യാം അതേപോലെ പിന്നെ പഴങ്ങൾ പഴത്തിൻ്റെ ഈ ചുവന്ന ഈ വാഴ ചുവന്ന പഴം ഉണ്ടല്ലോ ചുവന്ന പഴത്തിൻ്റെ തൊലി അതുവെച്ച് തോടെളക്കി അതൊഴിച്ചിരുന്ന് വള്ളത്തിലിട്ടരിഞ്ഞ് വെയ്ക്കണം അരിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ ചെവട്ടിലൊക്കെ നമ്മളൊഴിച്ച് കൊടുക്കാങ്കിൽ ചെടികൾക്ക് നല്ല നല്ല തണുപ്പും നല്ല പൂക്കളും വേരുകൾ കിളിക്കാനും വിത്തുകൾ പൊട്ടാനും ഒക്കെ നല്ലതാണ് ഇനി ഓറഞ്ചിൻ്റെ തൊലി വരുന്നത് നമുക്ക് ഓറഞ്ച് തൊലി അത് തൊലിയെടുത്ത് കുപ്പിക്കാത്ത് ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചു ഒരു നാല് അഞ്ച് ദിവസം വെച്ചിരിക്കണം വെച്ചിരുന്നിട്ട് അതീ ചെടികൾക്ക് കൊണ്ടൊഴിക്കാന്നൊണ്ടെങ്കിൽ നിറച്ച് പൂക്കൾ വരും നിറച്ച് പൂക്കളും വരും വിത്തുകൾ പൊട്ടി കിളിക്കയും ചെയ്യും പിന്നെ കീടങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഞാനങ്ങനെ ചെയ്തിട്ടൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വളങ്ങളിൽ നിന്ന് ചെയ്യാൻ പറ്റും പിന്നെ കൂടുതലായിട്ടും വളങ്ങൾ ചേർക്കുന്നത് നമ്മൾ ഈ ചാ മെയിനായിട്ട് ഞാൻ ചേർക്കുന്ന ചാണക പൊടിയാണ് കൂടുതലിടുന്നത് ഈ ചാണകപ്പൊടിയും തേയില കൊന്തും നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന വേസ്റ്റും അതും ഇതുമൊക്കെ ചേർത്ത് നമ്മൾ അതിനിട്ട് കൊടുക്കും പിന്നെ അതേപോലെ പിന്നെ നമ്മുടെ കയ്യിലുള്ള കൊച്ചു കൊച്ചു ഉണ്ടല്ലോ കാര്യങ്ങളൊക്ക അതെല്ലാം കൂടെ ഈ വെനാ വേസ്റ്റിൻ്റെ അതെല്ലാം കൂടെ ചേർത്തു വേസ്റ്റും എല്ലാം വെച്ചിരിക്കുന്നെയാണ് വെച്ചിരുന്നെല്ലാം കുറേശ്ശെ കുറേശ്ശെ ഞാനതിന് ഇട്ട് കൊടുക്കും വാ പിൻ പഴ വർഗ്ഗങ്ങളിൽ നിന്നും പഴ വർഗ്ഗങ്ങളൊക്കെ കിട്ടുന്നൊടനെ അതിനാത്തൂന്നുള്ള ആ വേസ്റ്റ് തൊലികളൊക്കെ വെച്ചിരുന്ന് ഞാനത് വെള്ളത്തിലിട്ടത് റെഡിയാക്കി ഒരാഴ്ച്ചയൊക്കെ വെച്ചിരുന്നു അതിനൊക്കെ എല്ലാ ചെടികൾടേം ചോട്ടിലിട്ട് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് വേരുകൾ പൊട്ടും വിത്തുകൾ എന്നാൽ നമുക്കാവശ്യത്തിനനുസരിച്ചുള്ള വിത്തുകൾ കിട്ടും അത് നമുക്ക് എല്ലാ ചെടിച്ചട്ടികൾ വേറെ ചെടിച്ചട്ടിയൊക്കെ വാങ്ങിച്ച് നമുക്ക് നട്ട് അത് വേറയൊക്കെ കിളിപ്പിക്കാൻ പറ്റും അത് അത് എല്ലാവർക്കും അത് നമുക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കേം ചെയ്യാം അങ്ങനെ ഞാൻ ചെയ്യാറില്ല ആർക്കെങ്കിലും വേണോന്നുണ്ടെങ്കിൽ ഞാൻ തൈ വിത്ത് ഇളക്കി കൊടുക്കാറുണ്ട് വീട് നിറച്ച് പൂക്കൾ വരാറുണ്ട് പിന്നതിനുള്ള വളങ്ങളൊക്കെ നമ്മൾ ഈ പഴവർഗങ്ങൾ പഴവർഗ്ഗങ്ങളൊക്കെ നല്ലതാന്ന് വേസ്റ്റ് വരുന്നത് നമ്മൾ മലക്കറീടെ വേസ്റ്റൊക്കെ വരുന്ന നമ്മൾ വെച്ചിരുന്നാ അതൊക്കെയിട്ട് കൊടുക്കുന്ന കൊണ്ട് തന്നെ അത് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കണം ഒരേപോലെ നന്നായിട്ട് കിളിച്ച് കയറി വരുന്ന പിന്നെ കടലാസ് ചെടിയുണ്ട് അത് നല്ല പൂക്കളാണ് നല്ല പല പല കളറൊള്ള പൂക്കളുണ്ട് അതിനൊക്കെ നമ്മളീ വേസ്റ്റ് എന്നാ പിന്നെ ഇതിൻ്റെ മലക്കറീടെ വേസ്റ്റ് ഉള്ളിത്തൊലി ഉള്ളീടെ വേസ്റ്റ് സാവോളേടെയൊക്കെ വേസ്റ്റ് വരുന്നത് അതെല്ലാം കൂടെ എന്തായാലും അപുറത്തൊക്കെ എന്തേലും വിശേഷം ഉണ്ടെങ്കിൽ നമ്മളാ ഉള്ളിത്തൊലിയൊക്കെ വെച്ചിരിക്കാൻ പറയും നമ്മളതൊക്കെ എടുത്തോണ്ട് വന്ന് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കും നമ്മൾ ഞാനത് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പം ഈ കടലാസ് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാങ്കിൽ നല്ല നിറച്ച് പൂക്കൾ വരുന്നുണ്ട് അതിനകത്ത് കമ്പുകളൊക്കെ ശിഖരങ്ങളൊക്കെ വെട്ടി കൊടുക്കാങ്കിൽ അതിൽ നിന്ന് പൊട്ടിക്കിളിച്ച് പൂക്കൾ വരാറുണ്ട് റോസയ്ക്ക് തന്നെ നമ്മൾ പല പല റോസാ ചെടികളൊക്കെ നിൽപ്പുണ്ട് അതിൽ ഈ റോസ ചെടിക്കൊക്കെ ഈ ചെമ്പരത്തിക്ക് നല്ല പല പല ചെമ്പരത്തി പൂക്കൾ അതിനൊക്കെയീ വളം ഇട്ടുകൊടുക്കണം ഇട്ടുകൊടുക്കുമ്പം അതേ നിറച്ച് പൂക്കൾ വരും അതിൻ്റെ ശിഖരങ്ങളൊക്കെ നല്ല പൊട്ടി പൊട്ടി കിളിച്ച് ഒന്നീ വേര് പൊട്ടുന്നെയാണെങ്കിലതങ്ങനെ പൊട്ടി കിളിച്ച് വരുന്ന ചെടികളുണ്ട് ഓർക്കിഡും ഓർക്കിഡിനന്നെ നല്ല നല്ല നമ്മളീ ച ചകരി ചോറിൻ്റെ ഈ ചകരീടെ ഈ തൊണ്ട് തേങ്ങ പൊതിക്കുമ്പോൾ തൊണ്ടിനകത്തുള്ള ചകിരിപ്പൊടി വരും അതെല്ലാം കൂടെ തു എടുത്തു അതിൻ്റെ ചോട്ടിൽ കൊണ്ടിട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ അത് നല്ല വളമാത് അത് നല്ല വളം നല്ലതായിട്ട് വളം ചേർന്ന് നിറച്ച് പൂക്കളായിട്ട് അത് വരും അല്ലെങ്കിൽ പിന്നെയീ റോസായ്ക്ക് തന്നെ റോസായ്ക്ക് തന്നെ നമ്മൾ ചാണക പൊടിയാണ് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്നത് ചാണകപ്പൊടി നമ്മൾ മാ പിന്നെ രണ്ട് മൂന്നാഴ്ച്ച കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടി അതിൻ്റെ ചുവട് ചുവട് ഇച്ചിരി വേര് ദൂരെ മാറ്റി ഇച്ചിരി കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കണം പിന്നെ ഇനി ഇച്ചിരി ഉള്ളിത്തൊലി അതിൻ്റെ പുറത്തിട്ട് കൊടുക്കും പിന്നെ മണ്ണും കൂടെ കൂടെ കൂടെ മണ്ണ് അടുപ്പിച്ച് കൊടുക്കേം പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ഉടനെ അത് നാല്ലതായിട്ടങ്ങ് തഴച്ച് വേരുകൾ പൊട്ടി വിത്തുകൾ വിത്തുകൾ കൂടുതൽ നമക്ക് കിട്ടും പിന്നതേ പോലെ നല്ല പിന്നെ ഈ പഴത്തിൻ്റെ വേസ്റ്റും പിന്നെ മലക്കറി വേസ്റ്റും മലക്കറി വേസ്റ്റും ഇതെല്ലാം കൂടെ ചേർത്തെല്ലാം കൂടെ കൊടുക്കുന്നൊണ്ടന്നെ ചെടികൾക്ക് നല്ലതായാണ് ഞാനങ്ങനൊക്കെ ചെയ്യാറുള്ളത് വെള്ളം നമ്മളീ പാത്രം കഴുകുന്ന വെള്ളോക്കെയുണ്ടല്ലോ അതൊക്കെ ചേർത്ത് അതെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്താക്കി ബക്കറ്റിനകത്താക്കി അതിനത്തെല്ലാത്തിനും ചെടീടെ ചോട്ടിൽ കൊണ്ടൊഴിക്കുന്നതാണ് വിത്തുകൾ കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് വിത്തുകൾ പൊട്ടുകയൊക്കെ ചെയ്യും പിന്നെ അതേപോലെ മറ്റുള്ള എന്നാ ഇതും എന്നാ തേയിലേടെ അതും തേയില തേയില വേസ്റ്റും എല്ലാം കൂടെ ചേർത്ത് അതെല്ലാം കൂടെ അങ്ങനാക്കി വെച്ചിരുന്നാലും നമുക്ക് നല്ലതാണ് പിന്നെ ചാണകത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിലത് എല്ലാ ചെടികൾക്കും എല്ലാ ചെടികൾക്കും ചെയ്ത് കൊടുക്കാങ്കിൽ എല്ലാ ചെടികളുടേം വേരുകൾ പൊട്ടി അവ വിത്തുകൾ വിത്തുകൾ വരികയും നമുക്ക് കൂടുതൽ ചെടിച്ചട്ടികളിലൊക്കെ മാറ്റാനും പറ്റും കാക പഞ്ഞി പഴങ്കഞ്ഞി കഞ്ഞിവെള്ളമുണ്ട് കഞ്ഞിവെള്ളം നല്ല പുളിച്ച കഞ്ഞിവെള്ളവൊക്കെ നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു അതിൻ്റെ ചോട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കയും കീടങ്ങളൊക്കെ പോകേം നല്ല വൃത്തിക്ക് ചെടികൾ നട്ട് വളരുകയും ചെയ്യും പിന്നെ പഴ വർഗ്ഗത്തിൻ്റെയൊക്കെ തൊ ഈ പഴത്തിൻ്റെയൊക്കെ തൊലികളുണ്ട് ഈ ഏത്തയ്ക്കാടെ ഒക്കെ ഈ അതൊക്കെ പൊളിച്ച് അത് കുപ്പിക്കകത്തിട്ട് വെള്ളമൊഴിച്ച് എല്ലാ ചെടികൾടേം ചുവട്ടിലിട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കുമ്പോൾ ചെടികൾക്കൊക്കെ ഒരു എന്നാൽ വേരുകൾ അതിനാത്ത് വേരുകൾ പൊട്ടുകയും വിത്തുകൾ നല്ലതായിട്ട് പൊട്ടി മുളച്ച് വരുകയും പിന്നെ എല്ലാ ചെടികളിലും പൂക്കളും വരികയും ഒക്കെ ചെയ്യും പിന്നെ ഓർക്കിഡിനൊക്കെ നമ്മൾ ചകിരി ചോറും അങ്ങനൊക്കെ ഉള്ള ഇട്ടുകൊടുക്കാണെങ്കിൽ നല്ല വളവാണ് പിന്നെ ഉള്ളിത്തൊലിയും പിന്നെ സവാളാടെതൊലിയും പച്ചക്കറീടേം പിന്നാ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ചു ഞാനങ്ങനോക്കെയാ ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ചെടികൾക്കൊക്കെ നല്ലായിട്ടുള്ള പൂക്കളൊക്കെ വരാറുണ്ട് പിന്നെ വേറെ വേറെ എല്ലാ കാര്യങ്ങളിലൊക്കെ ഞനങ്ങനെ ചെയ്യും പാത്രം കഴുകുന്ന വെള്ളവും പാത്രം കഴുകുന്ന വെള്ളവും എല്ലാം ഇട്ട് കൊടുക്കയൊക്കെ ചെയ്യും ചാണകത്തിൻ്റെ വേസ്റ്റ് പിന്നതിന് ചാണകം പച്ച ചാണകം ഇട്ട് കൊടുക്കാറില്ല ചാണകെടുത്തോണ്ടന്ന് ഉണക്കണം നല്ലായിട്ടൊണക്കി അത് പൊടിച്ച് മണ്ണൂടെ ചേർത്തിട്ട് കൊടുക്കണം കൂടെ കൂടെ നമ്മളീ മണ്ണ് ഇട്ട് കൊടുക്കാങ്കിൽ ചെടിച്ചെക്ക് ചുവട് ചെറുതായിട്ട് മാന്തി കൊടുത്ത് കുറച്ച് കുറേശ്ശേ കുറേശ്ശേ വളങ്ങളിട്ട് ചേർത്ത് ചേർത്ത് കൊടുക്കാങ്കിൽ ആ ചെടിക്ക് നല്ലതാണ് തേയിലാടെ വേയ്സ്റ്റ് വരുന്നതും തേയിലാടെ വേയ്സ്റ്റ് വരുന്നതും അതെല്ലാം കൂടെ കുറച്ച് ദിവസം വെച്ചിരിക്കണം വെച്ചിരുന്നിട്ട് അതൊന്നൊണക്കീട്ട് ഇട്ട് കൊടുക്കാണെങ്കിൽ ആ ചെടിക്ക് നല്ല പൂക്കളും പൂക്കളുണ്ടാകയൊക്കെ ചെയ്യും അതേപോലെ പിന്നെ എന്നാൽ ചുവടൊന്ന് കിളച്ച് കൊടുക്കണം എടയ്ക്കെടുക്കൊന്ന് ചെറുതായിട്ടൊരു ഇത് വെച്ച് മാന്തി മണ്ണിളക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ വേരങ്ങോട്ടിങ്ങോട്ടോടുകയും അതിനുള്ള വിത്തുകൾ കൂടുതൽ കൂടുതൽ പൊട്ടി കിളിക്കയും ചെയ്യും പൂക്കളൊക്കെ നിറച്ച് പൂക്കൾ കിട്ടുകേം ചെയ്യും റോസാ ചെടിക്കൊക്കെ നല്ല നല്ല പൂക്കൾ നിറച്ചും കിട്ടും വെള്ളം അതേപോലെ നല്ല ഇപ്പോൾ ഉണക്ക സമയത്തൊക്കെയാണ് നമുക്ക് നല്ല ശരിക്ക് വെള്ളം കൊടുക്കണം വെള്ളം അതിൻ്റെ കൂടെ തന്നെ വെള്ളോം കൂടെ കൊടുത്തെങ്കിൽ അതിന് പിന്നെ കൂടലായിട്ട് പൂക്കൾ വരത്തൊള്ളു അല്ലാതെ വെള്ളം ഒഴിക്കാതിരുന്നാൽ വേനലും പൂക്കളൊന്നും വരത്തില്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം അതേപോലെ വളോം കൊടുക്കണം അങ്ങനെ കൊടുക്കാന്നുണ്ടെങ്കിൽ പൂക്കളും പിടിക്കും നിറച്ച് വേരുകൾ വേരുകൾ പോകേ ചെയ്യും നിറച്ച് വിത്തുകൾ പൊട്ടി കിളുക്കേം ചെയ്യും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്